അങ്ങനെ വാദ്യോപകരണങ്ങളൊന്നും വായിക്കാറില്ല നമ്മൾ പക്ഷെ പഠിക്കണമെന്ന് ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു വയലിനും ഗിത്താറൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം വയലിൻ ചെയ്യാനാണ് വയലിൻ പഠിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോങ്ങിന് അനുസരിച്ച് വയലിൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അന്ന് നൃത്തമൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ തിമില ചെണ്ട അതിൻ്റെ ഒക്കെ ആ വാദ്യോപകരണങ്ങളൊക്കെ നമ്മൾ വാ സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല രസമാണ് അപ്പം നമുക്ക് അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ന്യൂ ജെന്നിൽ നിന്നും കുറേ എന്താണ് ഉപകരണങ്ങളൊക്കെ വായിക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സമയത്ത് ഞാൻ എന്നിട്ട് ശ്രമിച്ച് നോക്കുമ്പോഴായിരുന്നു നമ്മുടെ വയലിനും ഗിത്താറും പഠിക്കാനുള്ള അതിന് മുൻപേ കുറച്ച് ക്ലാസ്സിനൊക്കെ പോകുന്നെങ്കിലും എനിക്കത് എന്താണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്താണ് വീണ്ടും അതിനൊക്കെ ശ്രമിക്കണം ഏറ്റവും ആഗ്രഹമൊക്കെ ഉള്ള സാധനമാണ് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ വയലിനും ഗിത്താറുമാണ് ശരിക്കും എനിക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഉപകരണം എന്ന് പറയുന്നത്